ഒത്തുപോകാത്ത ഒരാള് കൂടെ ഞാന് ജോലി ചെയ്തിട്ടുണ്ട് അതെവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു അക്കൗണ്ടൻറ്റ് ആയിട്ടാണ് ജോലി ചെയ്തത് ഞാൻ ടാലി അവര് ടാക്സായിരുന്നു നോക്കുന്നത് അപ്പോൾ അവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊട്ടും ഒര് കമ്പനി അല്ല നമ്മളിപ്പോൾ ഒരു കടയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതായത് മുതലാളിയൊക്കെ നമ്മളോട് കുറച്ച് സ്ട്രിക്ട് ആയിരിക്കും അപ്പോൾ നമ്മള് പൊതുവെ നമ്മുടെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മള് പെട്ടന്ന് കമ്പനിയാവാനാണ് ശ്രമിക്കുക അപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അഞ്ജലി എന്നായിരുന്നു അവളുടെ പേര് അവള് ഒട്ടും നമ്മളുമായിട്ട് ഒത്തുപോവില്ല അവള് അവളുടെ ആവശ്യത്തിന് മാത്രം നമ്മളെ വിളിക്കും അല്ലാത്ത നമ്മളെ വിളിക്കുക ഒന്നുമില്ല പിന്നെ അവൾക്ക് അവളുടെ കാര്യം സ്വന്തം കാര്യം ആ ഒരു ചിന്ത മാത്രമെ ഉള്ളു അപ്പം നമ്മളോടൊന്നും ഒരു കമ്പനി അല്ല നമുക്ക് ഒന്നിച്ചിട്ടുണ്ടെങ്കിൽ ജോലി സ്ഥലത്ത് ഒരു കമ്പനി ഉണ്ടെങ്കിൽ നമുക്കടിപൊളിയാണ് ഒന്ന് പോകാനും വരാനും പക്ഷെ ഇവളൊരിക്കലും ഒരു കമ്പനിയായിട്ട് ഇതായിട്ടില്ല അവള് വലിയ അതായത് മാനേജരോട് വലിയ താൽപര്യം എല്ലാം കാണിച്ച് അവരോട് ഭയങ്കര കമ്പനി അങ്ങനെ ഉള്ള രീതിയിലാണ് നമ്മളോട് ഒരു കമ്പനി ഒന്നും ഇല്ല അവള് അവളുടെ ഇഷ്ടത്തിന് അവളുടെ കാര്യം വരുമ്പോൾ മാത്രം അവള് നമ്മളോട് ഇതാക്കാൻ വരും അപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനെന്തു ചെയ്തു ആദ്യമൊക്കെ ഞാൻ കുറച്ച് മൈൻഡാക്കാനൊക്കെ പോയി പിന്നെ അവള് വലിയ മൈൻഡ് ഇല്ലാന്ന് കണ്ടപ്പോൾ നമ്മളോട് മൈൻഡ് ഉണ്ടെങ്കിലല്ലേ നമ്മള് മൈൻഡ് കാണിക്കണ്ട ആവശ്യം ഉള്ളു ഇനി ഇവള് മുതലാളിയൊന്നും അല്ലല്ലോ നമ്മള് ഇവളുടെ കാലുപിടിച്ചിട്ട് നമ്മള് മിണ്ടാൻ പോകേണ്ട ആവശ്യം അപ്പോൾ ഞാനും പിന്നെ വലിയ മിണ്ടാനൊന്നും നിന്നില്ല അവള് അവളെന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഉത്തരം പറയും എനിക്കെന്തെങ്കിലും ചോദിക്കാനുള്ള ഞാൻ ചോദിക്കും അത്ര തന്നെ നമ്മള് ഒരു ജോലി സ്ഥലല്ലേ അപ്പോൾ നമുക്ക് ആവശ്യത്തിന് മിണ്ടാതിരിക്കാൻ പറ്റില്ലല്ലൊ അത്ര തന്നെ